ഹലോ ഗണേഷ് സൂപ്പർ മാർക്കറ്റിലേക്ക് ആണല്ലേ നിങ്ങൾക്ക് എത്ര കെ ജി വെച്ച് വേണ്ടി വരും വലിയ ഫങ്ക്ഷനാണോ എത്രപേര് പങ്കെടുക്കുന്ന ഫങ്ക്ഷനായിരിക്കും ആണോ ആ ഓക്കെ ഏതൊക്കെ ഐറ്റംസാണ് വേണ്ടത് വെണ്ട വെള്ളരി ആ നാല്പത്തിരണ്ട് രൂപയാണ് സാമ്പാറ് ഒരു കിലോ വരുന്നത് നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിനാകുമ്പോൾ മുപ്പത്തിയഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് ക്യാബേജ് ക്യാബേജ് കിലോയ്ക്ക് ഇരുപത് രൂപയാണ് അതെ അതെ വേറെ എന്തൊക്കെയാണ് വേണ്ടത് ഒന്ന് പറഞ്ഞുതന്നിരുന്നെങ്കിൽ അതിനനുസരിച്ച് പറഞ്ഞുതരാം താക്കളിക്കാണ് ഇപ്പം മാർക്കറ്റില് കൂടുതൽ റേറ്റ് ഉള്ളത് തക്കാളി നമുക്കൊരു ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു നൂറ് രൂപ കിലോയ്ക്ക് തരാൻ പറ്റുകയുള്ളു ഓക്കെ രണ്ട് ഐറ്റമുണ്ട് പിന്നെ നമുക്ക് നാടനും അല്ലാതെ രണ്ട് ഐറ്റമുള്ളത് അത് നമുക്ക് അങ്ങനെ ആണെങ്കിൽ നൂറ് രൂപക്കെടുക്കാം ഉള്ളിക്ക് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് എല്ലാത്തിലും ഐറ്റംസ് എല്ലാ സാധനങ്ങളും നമ്മള് ഇതിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടൊരു ലിസ്റ്റ് ഡീറ്റൈലായിട്ട് തന്നുകഴിഞ്ഞാൽ അതിനനുസരിച്ച് സാധനങ്ങള് എത്തിച്ച് തരുന്നതായിരിക്കും അതെ അത് പറയുക അത് നിങ്ങളൊന്ന് കറക്റ്റ് സാധനത്തിൻ്റെ ലിസ്റ്റ് തന്നുകഴിഞ്ഞാല് ഞങ്ങളുടെ വണ്ടി അവിടേക്ക് എത്തിച്ച് തരും അതെ ഓക്കെ ഞാൻ അതിനനുസരിച്ച് അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ലിസ്റ്റ് ഇട്ട് നിങ്ങളുടെ വാട്ട്സപ്പിലേക്ക് റേറ്റ് അയച്ച് തരാം